ഇപ്പം വയനാട് ജില്ലയിലെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഫോറസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു എന്നാണ് എന്റെ വിശ്വാസം ഇവിടെ ഇപ്പോൾ കുറേ ബിൽഡിംഗുകളും പിന്നെ അധികം ഇപ്പോൾ കാർ സർവീസുകൾ കൃഷികൾ ഫാമുകളായിട്ടും കുറേ നിരവധി സംഭവങ്ങൾ വന്നിട്ടുണ്ട് അപ്പം വയനാട് ജില്ലയിലെ ജനങ്ങൾക്ക് എങ്ങനെയാണ് അത് ബാധിക്കുക എന്നു പറഞ്ഞാൽ ജനങ്ങൾക്കിപ്പം പല സൗകര്യങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് എന്നു വെച്ചാൽ കുറേ പണ്ടുകാലത്തൊക്കെ ആണെങ്കിൽ ബസ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ബസ്സ് ഉണ്ട് ബസ്സ് സർവീസും എല്ലാം ഉണ്ട് സോ അങ്ങനൊക്കെയാണ് ഞങ്ങൾക്ക് ഓരോന്നിനും പോകാനുള്ള ഇത് കിട്ടുന്നത്